ഇത് കോഴിക്കോട് ല്ലേ ആ വിളിച്ചത് അവിടത്തെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവിടത്തെ ബിൽഡിങ്ങും അതല്ലേ കോഴിക്കോട് എങ്ങനെയാണ് അതെ അതെ കോഴിക്കോട് എങ്ങനെയാണ് വിദ്യാഭ്യാസത്തില് ഓക്കെ ഇപ്പോഴും ഓടിട്ട കെട്ടിടങ്ങളൊക്കെ ഉണ്ടോ

നല്ല മികച്ച വിദ്യാഭ്യാസമാണോ അവിടെ ഇപ്പോള് ഓടിട്ട കെട്ടിടങ്ങളൊക്കെ ഉണ്ടോ ഓക്കെ ഓക്കെ

ആ നല്ല കാര്യം അപ്പോള് ഞാനതു ചോദിച്ചറിയാൻവേണ്ടി വിളിച്ചതാണ് എന്നാല് താങ്ക്യു